സാമൂഹിക സേവനത്തിനു നമ്മുടെ മതം പറയുന്നത് എങ്ങനെയാണെന്നു വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ പ്രദേശത്തു നമ്മൾ എൻ എസ് സ് എന്നു പറഞ്ഞൊരു കരയോഗമുണ്ട് ആ കരയോഗത്തിൽ നമ്മൾ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ഒരു പൊതുയോഗം വെക്കാറുണ്ട് നമ്മുടെ എൻ എസ് എസ്സിൽ ട്ടോട്ടൽ എൺപത്തി രണ്ട് കുടുംബങ്ങളാണ് ഉള്ളത് ആ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ വെച്ചിട്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുറച്ച് ഫാമിലിനേ തിരഞ്ഞെടുത്ത് നമ്മൾ അവരെ എല്ലാമാസവും നമുക്ക് നമ്മൾ അവർക്കൊരു തുക കൈമാറാറുണ്ട് നമ്മളെല്ലാ ഫാമിലിയും എൺപത്തി രണ്ട് കുടുംബത്തിലെ ഇപ്പോൾ ഒരഞ്ചു കുടുംബം പാള് അവർ അവശ്യ നിലയിലാണെങ്കിൽ അവരുടെ അടുത്തു നിന്നു മാത്രം പിരിക്കാതെ ബാക്കി കുടുംബത്തിൽ നിന്നും ഒരു തുക പിരിച്ചു അവർക്കു നമ്മൾ വീതിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പാവപ്പെട്ട വീട്ടിലെ കല്ല്യാണങ്ങൾ വരുമ്പോഴാണെങ്കിലും നമ്മളവർക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളുടെ എൻ എസ് എസ്സിനെ കൊണ്ടു കഴിയുന്ന രീതിയിൽ നമ്മളവരെ സഹായിക്കുന്നുണ്ട് പിന്നെ മരണം വരികയാണെങ്കിൽ തന്നെ അങ്ങനെയാണ് നമ്മൾ ഒരു മരണ ഫണ്ടെന്നു പറഞ്ഞ ഒരു ഫണ്ടുണ്ട് അപ്പോൾ അതിനകത്തേക്കു നമ്മൾ ഒരു മുന്നൂറു രൂപ വെച്ചിട്ട് വർഷത്തിൽ അടക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊരു മരണവീട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരു ദിവസം ഒരു ഏഴായിരം രൂപയുടെ വരെ ആയിട്ടു ചിലവുണ്ടാകും അപ്പോൾ അതു ഫുള്ളും നമ്മുടെ എൻ എസ് എസ്സാണ് വഹിക്കുന്നത് അങ്ങനെയുള്ള സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയുള്ള രീതികളും നമ്മളിപ്പോഴും പിന്തുടരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ എൻ എസ് എസ്സാല്ലാതെ തന്നെ നമ്മുടെ ഏതൊരു മതത്തിലിപ്പോൾ ക്രിസ്ത്യനാണെങ്കിലും മുസ്ലീമാണെങ്കിലും ഇവിടെ കൂടുതലും ക്രിസ്ത്യൻസും ഹിന്ദൂസ്സാണുള്ളത് ഇപ്പോൾ വേറൊരു അന്യമതസ്ഥനാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ആക്സിഡൻ്റ് പറ്റിയെന്നു അറിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കൂടി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ ഇന്ന മതം ഇന്ന രീതിയെന്നൊന്നുമില്ലാ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടും സേവനങ്ങൾ ചെയ്യാറുള്ളതാണ്